ഹലോ ഹലോ ആരാണ് ഹലോ ഓക്കേ ഓക്കെ ഓക്കെ ഓക്കെ നിങ്ങളുടെ കോളിഫിക്കേഷൻ എന്താണ് നമുക്ക് ഇപ്പം ഒരു വേക്കൻസി വന്നിട്ടുണ്ട് അവൈലബിൾ ആണ് ഓക്കെ നിങ്ങളുടെ കോളിഫിക്കേഷൻ എങ്ങനെ ആണ് ഓക്കെ ഓക്കേ ഓക്കെ നിങ്ങൾ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ നിങ്ങൾക്ക് എങ്ങനത്തെ ട്രാൻസിലേറ്റ് നിങ്ങൾ മലയാളത്തിൻ്റെ ആണോ ഇംഗ്ലീഷിലാണോ നിങ്ങളെടുക്കാൻ താൽപര്യപ്പെടുന്നത് ഓ മലയാളമാണ് ഓക്കെ ഓക്കെ ഓക്കെ ഉം ആ ആ ആ ആ ഓ അതുശരി ആ ആ ആ ആ ആ ആ എ എവിടെയാണ് ജോലി ചെയ്തത് വില്ലേജ് ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ എവിടെ എങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ ആ എത്ര നാൾ വർക്ക് ചെയ്തു അവിടെ ഓക്കെ ഓക്കെ ഓക്കെ ആ ആ എങ്ങനെയാണ് നിങ്ങളുടെ ആ ബയോഡേറ്റയും കാര്യങ്ങളും ഒക്കെ ആയിട്ടെങ്കിലും ഒരു എന്താണ് പറയുക ഇന്നിപ്പം സൺഡെ അല്ലെ ഓല് മാം നാളെ മണ്ടെ നിങ്ങൾ നിങ്ങളുടെ എന്തുവാണ് ബയോഡേറ്റയും കാര്യങ്ങളും ആക്കിയിട്ട് വരു നമുക്ക് നേരിട്ട് ഒരു ഇൻറ്റർവ്യൂ കാര്യങ്ങളുമൊക്കെ ഒന്ന് നടത്തിയിട്ട് നമുക്ക് എന്താണെന്ന് വച്ചാൽ അതിൻ്റെ അഭിപ്രായം പറയാം നിങ്ങളുടെ ലാങേജ് നിങ്ങളുടെ ലാംഗ്വേജ് സ്കില്ലും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് നമുക്ക് എന്താണെന്ന് വച്ചാൽ ഫൈനലായിട്ട് ഒരു ഡിസിഷൻ നമുക്ക് എന്തായാലും പറയാം എന്തായാലും നിങ്ങൾ ഒരു നാളെ ഒരു പത്ത് മണി ആവുമ്പഴുത്തേക്കും നിങ്ങൾ വരിക അപ്പം നമ്മൾക്ക് എന്താണെന്ന് വച്ചാൽ ഇൻറ്റർവ്യൂ കാര്യങ്ങളുമൊക്കെ കണ്ടക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ആ ട്രാൻസിലേറ്റർ ആയിട്ട് വന്ത് ജോലി നോക്കാം നമുക്ക് സ്റ്റാർട്ടിങ നിങ്ങൾ എന്താണ് സാലറി ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം എന്തായാലും നിങ്ങളുടെ നല്ല ഒരു അത്യാവശ്യം നല്ല ഒരു സാലറി പാക്കേജാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ട്രാൻസിലേറ്ററായിട്ടൊക്കെ നിൽക്കുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കില്ല അനുസരിച്ചായിരിക്കും ഞങ്ങൾ സാലറി കൂട്ടണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനിക്കുന്നത് അ അപ്പം എന്തായാലും നിങ്ങൾ ഒരു പത്ത് മണി ആവുമ്പഴത്തേക്കും വരിക അപ്പം ബാക്കി കാര്യങ്ങൾ നമ്മൾ ഒ